ഹലോ ഹലോ ഹലോ ആരാണ് അതേലോ ആരാണ് വിളിക്കുന്നത് ആ ഓക്കെ

ഇവിടെ തളം വെക്കുന്നുണ്ട് മസാജ് ചെയ്യുന്നുണ്ട് അങ്ങനെ തിരുമ്മൽ ഉണ്ട് ഉണ്ട് ഉണ്ടല്ലോ ആ അത് ഏതാണ്ട് ഒരു മാസക്കാലം ചെയ്യേണ്ടി വരും

ആ അതിന് ബോഡി

ഒരു മാസത്തേക്കാണ് ഇരുപത്തി അയ്യായിരം രൂപ വരുക

ആ തീർച്ചയായിട്ടും അവിടെ വന്ന് താമസിച്ച് അവിടെ കിടന്ന് വേണം അത് ചെയ്യാൻ യാതൊരു കാരണവശാലും യാതൊരു കാര്യത്തിനും വീട്ടിലേക്ക് വിടുന്നതായിരിക്കുന്ന വിടുന്നതായി വിടത്തില്ല അതുകൊണ്ട് അതിന് നിർബന്ധം പിടിക്കരുത് താമസം ആഹാരം ഒക്കെ അവിടുണ്ട് ഫുഡും എല്ലാം അവിടെയുണ്ട് എല്ലാം ഉണ്ട് ഫുഡ് എല്ലാം നമ്മൾ തരുന്നതായിരിക്കും അതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ വീട്ടിൽ പോകാനോ ഒന്നും ശാഢ്യം പിടിക്കരുത് അതിന് ഞങ്ങൾ വിടത്തുല്ല ഓക്കെ അങ്ങനെ ആണെങ്കിൽ ഡേയ്റ്റ് പറഞ്ഞോളൂ ഞങ്ങൾ നിങ്ങളുടെ സൗകര്യം പോലെ വരുക ആ ആ ഒരു പ്രശ്നവും ഇല്ല ഒരു പ്രശ്നവും ഇല്ല ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും വരത്തില്ല പക്ഷേ ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം നിങ്ങൾക്ക് ഞങ്ങൾക്ക് അവിടെ പോകണം അല്ലെങ്കിൽ വീട്ടിന്നാരെങ്കിലും വരുമ്പോൾ ഞങ്ങൾക്ക് പുറത്ത് കറങ്ങാൻ പോകണം പുറത്ത് നടക്കാൻ പോകണം എന്നൊന്നും പറഞ്ഞാൽ ഞങ്ങൾ വിടത്തില്ല അങ്ങനെ ഉണ്ടേൽ ഒരു പക്ഷേ നിങ്ങളുടെ നടുവേദന കൂടത്തെയുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളതിനു ഉത്തരവാദികളല്ല ഇരുപത്തി അയ്യായിരം രൂപ മേടിച്ച് ഞങ്ങളത് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായും അതിന് പ്രതിഫലം നിങ്ങൾക്ക് കിട്ടിയിരിത്തക്കതു പോലെ ഞങ്ങൾ ചെയ്യത്തുള്ളൂ അപ്പോൾ നിങ്ങളുടെ നിർബന്ധമൊന്നും ഞങ്ങടടുത്ത് എടുക്കാതെ ഇരിക്കാമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ആ കാര്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് നടുവേദനയോ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങളത് മാറ്റി തരുന്നതായിരിക്കും ഓക്കെ മുൻകൂറ് പൈസ അങ്ങനെ ഒന്നും തരണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അടയ്ക്കാം നിങ്ങൾ ഇരുപത്തി അയ്യായിരം ഒന്നിച്ച് വന്നാൽ ഉടനെ തരണമെന്നില്ല അത് കുറച്ച് പൈസ വല്ലോം അടയ്ക്കുക അതിന് ശേഷം പോകുന്നതിന് മുമ്പ് ആ ഇരുപത്തി അയ്യായിരം രൂപ നിങ്ങളുടെ ഇഷ്ട്ടം പോലെ നിങ്ങൾ അടച്ചു തീർത്താൽ മതി ഞങ്ങളങ്ങനെ ഒന്നും ചെയ്യുന്നവരല്ല ഞങ്ങൾ ആ നിങ്ങൾ ഇന്ന് എത്രയാണ് ഡേയ്റ്റ് ഇന്ന് പത്ത് നിങ്ങളൊരു പതിനേഴൊക്കെ ആകുമ്പോൾ പോര് രാവിലെ വരണം കേട്ടോ ഏഴ് മണിക്ക് അവിടെ വന്നിരിക്കണം എങ്കിൽ മാത്രമേ ഏഴ് മണിക്ക് വരുവാണെങ്കിൽ വളരെ സൗകര്യപ്രദമായിട്ട് നിങ്ങൾക്ക് കാണാം കേട്ടോ ഓക്കെ അല്ലേ ഇപ്പം ഇതെല്ലാം സമ്മതിക്കുവെങ്കിൽ മാത്രം വന്നാൽ മതി നിർബന്ധബുദ്ധി പിടിക്കരുത് കേട്ടല്ലോ ആ ഓക്കെ ഓക്കെ ആ ശരി